ആ പറയൂ ഓ ഇങ്ങനൊരു ഡൗട്ട് വന്നപ്പോൾ തന്നെ വന്ന് ചോദിച്ചതിൽ വളരെ സന്തോഷം അപ്പൊൾ ഏത് ഫീൾഡിലോട്ട് പോകാനാണ് ഏറ്റവും കൂടുതല് താത്പര്യം ഉള്ളത് ഓ അപ്പൊൾ ഐറ്റി ഫീൽഡാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നമുക്ക് എന്താ പറയ്ക പ്ലസ്ടൂ പ്ലസ്ടൂലാണേയിപ്പോൾ ബയോളജി അങ്ങനെ പല ഇതൊണ്ടെങ്കിലും ഐ ടി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ കമ്പ്യൂട്ടർ സയൻസ് എടുക്കണതാരിക്കും ബെറ്റർ ഓപ്ഷൻ പറയുന്നത് കാരണം അതല്ലെങ്കിൽ പ്ലസ്ടൂ കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാൻ പോന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊൾ ഐ റ്റി ഉദ്ദേശിക്കുന്ന കൊണ്ട് തന്നെ പ്ലസ്ടൂ നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം അപ്പൊൾ ഏതാണോ ബെറ്റെർ നിങ്ങൾടെ അടുത്തൊള്ള സ്കൂള് അപ്പൊൾ നല്ലൊരു സ്കൂള് ചൂസ് ചെയ്തിട്ട് അവിടെ പോയിട്ട് കമ്പ്യൂട്ടർ സയൻസിനായി പ്ലസ്ടൂവില് ചേരുന്നതായിരിക്കും നല്ലത് ഓ അങ്ങനെയും ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട് ഇപ്പൊൾ പ്ലസ് ടൂ ഹയർ സെക്കൻഡറി താത്പര്യം ഇല്ലാന്നാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പത്ത് കഴിഞ്ഞിട്ട് ആ എന്താ പറയ്ക ഡിപ്ലോമ കോഴ്സുകള് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ഒരു ജോലി നോക്കിയാലും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് ഒരു എഞ്ചിനീയറിംഗ് ഡിഗ്രിയൊക്കെയാണ് കൂടുതലായിട്ട് വേണ്ടെങ്കി വേണമെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിട്ട് വീണ്ടും ബിടെക്ക് കമ്പ്യൂട്ടർ സയൻസ് എടുക്കാം അതെല്ലെങ്കിൽ എന്താ പറയ്ക നമക്ക് പ്ലസ്ടൂ കഴിഞ്ഞിട്ട് ബിടെക്ക് എടുത്ത് പോകാം ഇപ്പൊതന്നെ കമ്പ്യൂട്ടർ സയൻസില് നമ്മക്കറിയാലോ ടെക്നോളജീസൊക്കെ വളരെ വളർന്നോണ്ടിരിക്കുവാണ് അപ്പൊൾ ആർട്ടിഫിഷ്യൽ ഇൻ്റെലിജെൻസ് സൈബർ സെക്യൂരിറ്റി അങ്ങനെ ഒരുപാട് ബ്രാഞ്ചുകളുണ്ട് ഏതാണോ ആഗ്രഹം അതിനനുസരിച്ച് എടുത്ത് പഠിക്കാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് എന്തായാലുമുണ്ട് നമ്മളിപ്പൊ ഡിപ്ലോമേനെക്കാളും എപ്പഴും വാല്യു എന്ന് പറയുന്നത് ബിടെക്കിന് തന്നെ ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക പക്ഷെ നിങ്ങളിപ്പോൾ ഡിപ്ലോമ പഠിക്കാൻ ആഗ്രഹിക്കാണ് എങ്കില് നമ്മള് ആഗ്രഹത്തിനനുസരിച്ച് ആണല്ലോ ചെയ്യേണ്ടത് അങ്ങനെ ആണെങ്കിൽ ഡിപ്ലോമ പഠിക്കുക അതുകഴിഞ്ഞിട്ട് ബി ടെക്ക് എടുക്കുക എന്നാണെങ്കിൽ അങ്ങനെ ബി ടെക്ക് എടുക്കുകാന്ന് വിചാരിക്കുക അതുകഴിഞ്ഞിട്ട് എം ടെക്ക് എടുക്കുന്നൊള്ളത് ഒരു നിർബന്ധവല്ല കാരണം ബി ടെക്ക് കഴിഞ്ഞ് തന്നെ നിങ്ങൾക്ക് നല്ല ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഇപ്പൊൾ ഐറ്റിയിലുണ്ടാവുക അപ്പൊൾ എംടെക്കൂടെ എടുത്തിട്ട് അതിലോട്ട് പോണോന്നൊള്ളത് ഒരു ഇതുമില്ല അപ്പൊൾ ബി ടെക്ക് കഴിഞ്ഞിട്ടാണെ നല്ല ഓപ്പർച്യൂണിറ്റീസ് നോക്കീട്ട് ജോലിക്ക് കേറുന്നത് എന്തുകൊണ്ടും നല്ലതാരിക്കും അതിന് തന്നെ ഇപ്പോൾ ഒരുപാട് കോഴ്സസ് അവൈലബിൾ ആരിക്കും ഇപ്പോൾ തന്നെ പല സ്ഥലങ്ങളിലും സിക്സ് മന്ത് ജാവാ അല്ലെങ്കിൽ പൈത്തൺൻ്റെയൊക്കെ കോഴ്സസും ഉണ്ടായിരിക്കും നിങ്ങക്ക് വേണമെങ്കിൽ ബിടെക്കിൻ്റെ കൂടെ തന്നെയത് ചെയ്യാം അതല്ലെങ്കിൽ ബി ടെക്ക് കഴിഞ്ഞ് അതൊരു ചെയ്തിട്ട് അങ്ങനെയും ജോലിയില് കയറാം ഓ ഇനിയെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലെപ്പോൽ വന്നാലും ഒരു കുഴപ്പവുമില്ല അപ്പോൾ നിങ്ങക്കേതാണ് ഡിപ്ലോമയാണോ അല്ലെങ്കിൽ പ്ലസ്ടു ചെയ്യാൻ പോവാണോ എന്താണിപ്പോൾ ഫൈനലി ഉറപ്പിച്ചിരിക്കുന്നത് ഓ നന്നായി എന്നാലിപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് തന്നെയങ്ങെടുത്ത് നിങ്ങൾക്ക് ഐറ്റിയാണല്ലോ താത്പര്യം ജോബിൻ്റെ കാര്യം ആലോചിച്ച് ടെൻഷൻ ആകണ്ട ഇപ്പൊൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസാണ് ഐ റ്റി ഫീൽഡിലുള്ളത് നിങ്ങക്കേതു ലാഗ്വേജാണോ ഉള്ളത് അത് തന്നെ വേണമെങ്കിൽ കുറച്ചുംകൂടെ സ്പെഷ്യലൈസ് ചെയ്ത് പഠിച്ച് അങ്ങനെ ആ ഒര് ബേസിൽ തന്നെ നമുക്ക് ജോബിന് അതൊക്കെ ഫ്രണ്ട് എൻഡ് ബാക്ക് എൻഡെന്നൊക്കെ പറഞ്ഞിട്ട് ഡെവലപ്പിങ്ങ് ആയാലും അങ്ങനൊരുപാട് സെക്ഷനുണ്ട് അപ്പം നിങ്ങക്കതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും നിക്കാൻ പറ്റും അപ്പം അതുകൊണ്ട് ഒന്നും വിചാരിക്കണ്ട അപ്പം ഓക്കെ ഷുവർ ഓക്കെ